അതെ പറഞ്ഞോളൂ മാഡം ആ ഓക്കേ മാഡം നമുക്ക് ഇപ്പം ഒരുപാട് ഹൗസുകള് ഇങ്ങനെ റെന്റിന് അവൈലബിള് ആണ്

ആ ഒരു വര്ഷത്തേക്ക് അല്ലേ അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് ഏകദേശം ഒരു ട്വന്റി തൗസന്റ് ട്വന്റി ഫൈവ് തൗസന്റ് അഡ്വാന്സ് പേമെന്റ് വേണം പിന്നെ മന്ത്ലി ഒരു ഫൈവ് തൗസന്റ് ആണ് റെന്റ് വരിക മാഡം നമുക്ക് ഒരു വീട്ടിൽ ഇപ്പോൾ രണ്ടു ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്ത്റൂം കോമണ് ഒരു ബാത്ത്റൂം പിന്നെ ഒരു കിച്ചണ് വരുന്നുണ്ട് ഒരു ഹാൾ വരുന്നുണ്ട് പിന്നെ ഒരു സിറ്റ്ഔട്ടും വരും ആ ഓക്കേ മാഡം അത് നമുക്ക് ഓള്മോസ്റ്റ് എ സി വരെ വരുന്ന വീടാണ് ആ ആ ഓ ഇഷ്ടം പോലെ ഉണ്ട് മാഡം നമുക്ക് അവിടെ തന്നെ ഒരുപാട് സ്കൂളുകള് പ്രൈവറ്റ് സ്കൂളുകളും ഉണ്ട് ഗവണ്മെന്റ് സ്കൂളുകളും ഉണ്ട് ആ ഓക്കേ എല്ലാം ഇവിടെ നിയർ തന്നെ എല്ലാം ഉണ്ടാവും മാഡം ഓക്കേ അത് ഈയൊരു നമ്പരില് ആണോ മാഡത്തിനു വാട്ട്സ്ആപ്പ് ഉള്ളത് ആ ഓക്കേ മാഡം ഞാന് വാട്ട്സപ്പ് ചെയ്തേക്കാം ആ ഓക്കേ ആ ഓക്കേ ആ ഓക്കെ മാഡം എന്തായാലും നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന വീട് നമുക്ക് ചൂസ് ചെയ്തുകഴിഞ്ഞാല് ഞങ്ങള് അതിന്റെ കാര്യങ്ങളും എല്ലാ ഡീറ്റയില്സും മാഡത്തിനു വാട്ട്സപ്പ് ചെയ്തു തരാം ആ ഫസ്റ്റ് നമുക്ക് അവിടെ സെക്യൂരിറ്റി ആ ഒരു പേമെന്റ് വേണ്ടി വരും പിന്നെ വണ് ഇയറില് കഴിഞ്ഞ് മാഡം വെക്കേറ്റ് ചെയ്യുന്ന ആ ടൈമിൽ നമുക്കാ പേമെന്റ് റിട്ടേണ് തരും ഓ എല്ലാം അയച്ചു തരാം മാഡം ഓക്കെ മാഡം നോക്കിയിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മാ പറഞ്ഞാൽ മതി അത് നമ്മൾ അറേഞ്ച് ചെയ്തു തരാം ഓക്കെ മാഡം